ഞാൻ പണ്ട് കളിച്ചു എന്നു കഴിഞ്ഞാൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ലജ്ജാവതി എന്ന് പറഞ്ഞൊരു പാട്ടിനാണ് ഞാൻ കളിച്ചത് വലിയ കുഴപ്പമില്ലാണ്ട് ഞാൻ കളിച്ചിരുന്നു അത് ഗ്രൂപ്പ് ഡാൻസ് ആയിട്ടാണ് കളിച്ചത് പിന്നെ വന്ദേമാതരം എന്നു പറഞ്ഞൊരു പാട്ടിനും ഞാൻ കളിച്ചിരുന്നു നമ്മുടെ ചിരട്ടയൊക്കെ തേച്ചുമിനുക്കി അതിനകത്ത് ഒരു എന്താ പറയുക തിരിയൊക്കെ കത്തിച്ച് നല്ല സെറ്റപ്പ് ആയിട്ട് ഞാൻ കളിച്ചിരുന്നു അത് ആ കളിയും ഞാൻ കളിച്ചിരുന്നു പിന്നെ അതുകഴിഞ്ഞിട്ട് പിന്നെ ഡിഗ്രിയ്ക്ക് ആണ് ഞാൻ പിന്നെ അടുത്ത ഡാൻസ് കളിക്കുന്നത് വലിയ ഒരു പിടി ഇല്ലാണ്ടാണ് ഞാൻ ഡാൻസ് കളിച്ചത് എന്റെ മേൽ അതിനു വേണ്ടിയിട്ട് വഴങ്ങുന്നില്ല എന്നു വേണമെങ്കിൽ പറയാം കൂട്ടുകാരൊക്കെ നല്ലോണം കളിച്ചു ഞാനൊരു ഗ്രൂപ്പ് ഡാൻസ് ആയിട്ടാണ് കളിച്ചത് മിക്സഡ് സോങ്ങ് ആണ് ഞാൻ കളിച്ചത് എന്റെ കൂടെ നിന്നവരെല്ലാം നന്നായിട്ട് കളിച്ചു ഞാൻ മാത്രം എന്താ പറയുക കുറച്ച് മോശമായിട്ടാണ് കളിച്ചത് അന്നാണ് പിന്നെ അതുകഴിഞ്ഞിട്ട് അതായത് അഞ്ചാം ക്ലാസ്സിൽ കളിച്ചു കഴിഞ്ഞതിനു ശേഷം പിന്നെ ഞാൻ കളിക്കുന്നത് എന്താണെന്നു വച്ചാൽ അവരെല്ലാം നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ കളിച്ചത് ഇല്ലെങ്കിൽ കളിക്കില്ലായിരുന്നു പിന്നെ കളിക്കാനൊരു ആഗ്രഹം അപ്പോൾ നമ്മുടെ അവസാനത്തെ ഒരു എന്താ പറയുക ചുവടുവെപ്പ് എന്നൊക്കെ പറയാം അതായത് ഡിഗ്രി ലാസ്റ്റ് ഇയർ ആ ടൈമിലാണ് ഞാൻ കളിക്കുന്നത് അതിനുമുന്നേ ഒന്നും ഞാൻ കളിച്ചിട്ടില്ല എനിക്കൊരു മടിയൊക്കെയാണ് സ്റ്റേജിൽ കയറാൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പോഴാണ് കളിച്ചത് എനിക്ക് മെയ്യൊന്നും വഴങ്ങുന്നുണ്ടായിരുന്നില്ല പക്ഷേ എന്നാലും ഞാൻ കളിച്ചു നല്ലരീതിയിൽ കളിച്ചു എന്താ പറയുക അത്യാവശ്യം കയ്യടിയൊക്കെ കിട്ടി ഇതാണെന്റെ ഞാൻ ഡാൻസ് കളിച്ചതെന്നു വേണമെങ്കിൽ പറയാം